ഹലോ ഹോട്ടൽ ഹരിഹരപുത്രയല്ലേ ഞാൻ ഭക്ഷണത്തിന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഭക്ഷണം മീൽസായിരുന്നു മീൽസ് സദ്യ എല്ലാ വട്ടങ്ങളും ചപ്പാത്തി പിന്നെ പനീർ ബട്ടർ മുതലായ എല്ലാ വസ്തുക്കളും എൻ്റെ വീട്ടിൽ എത്തി പക്ഷെ പേയ്മെന്റ് നിങ്ങൾക്ക് ഞാൻ അയച്ചത് കിട്ടിയോ എന്നറിയാൻ വേണ്ടിയാണ് ഇപ്പോൾ വിളിക്കുന്നത് ഞാൻ അയച്ച ഗൂഗിൾ പേ വഴിയായിരുന്നു അത് നിങ്ങൾക്ക് കിട്ടിയോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ് ഞാൻ വീണ്ടും വിളിക്കുന്നത്